ഹലോ എനിക്ക് ദുപ്പട്ട വേണം പിന്നെ ഓൺലൈനിൽ

ആണോ എനിക്ക് പിന്നെ റോഡ് സൈഡ് കടയായിട്ട് തുടങ്ങാനാണേ ഒരുപാട് ഇത് വേണം അത് വേണം ആണോ എങ്ങനെ അറിയിക്കും നമ്മൾ വിളിക്കണോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ